ആ അതേ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണ് പറയൂ ആ

ഇപ്പം മൂന്ന് മാസത്ത ക്ലാസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടി അത് ബേക്കപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുഴപ്പം ഇല്ല

ആ അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെ അല്ലായിരുന്നോ

ആ ചിലപ്പം ആ ചിലപ്പം നല്ല സെയിം സിലബസ് ആയിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുഴപ്പം ഇല്ല അപ്പം എത്രാം ക്ലാസ് ആയിരുന്നു ആ ഓക്കെ അപ്പം ഇവിടെ ഡോണേഷനോ ആ ഡോണേഷൻ ഒരു വൺ ലാക്ക് ആണ് വരുക ആ ഇപ്പം പിന്നെ ഇപ്പം ഇത്രയും ടൈം ആയതുകൊണ്ട് ആണ് അല്ലെങ്കിൽ അമ്പത് ഒക്കെ മതിയായിരുന്നു അപ്പം ക്ലാസ്സ് തുടങ്ങിയിട്ട് ഇത്ര ആയില്ലെ അപ്പം ഒരു കുട്ടി പോയിട്ട് ഉണ്ട് ഇവിടെ നിന്ന് അപ്പം ആ കുട്ടീൻ്റ സീറ്റിലേക്ക് വേണം കയറ്റാൻ ആ പിന്നെ അങ്ങനെ പിന്നെ യൂണിഫോമ് മൂന്ന് എണ്ണം ആണ് ഉള്ളത് ആ മൂന്ന് എണ്ണം അപ്പം സാറ്റർഡേ വേറെ ആയിരിക്കും സാറ്റർഡേ വരെ ക്ലാസ്സ് ഉണ്ട് കേട്ടോ ആ പിന്നെ ബുധനാഴ്ച വേറെ ആയിരിക്കും ബാക്കി എല്ലാ ദിവസം ഒന്നുതന്നെ ആയിരിക്കും ആ ഇല്ല കുട്ടീനെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇവിടെ നിന്നു തന്നെ തരും ആ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടുന്നുതന്നെ തരും ആ ബുക്കിന് ആ ബുക്കിന് ഒക്കെ എക്സ്ട്രാ ഉണ്ട് ഫീസ് വരുന്നത് ഒരു മാസം ആറായിരം രൂപ ആണ് ആ അത് എന്ന് വച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ഫീയും അങ്ങനത്തെ എല്ലാ ഫീസും ഉണ്ട് എനിക്ക് വല്ല ഡാൻസോ പാട്ടോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇവിടെ നിന്നുതന്നെ ചെയ്തുതരും ആ കുട്ടീൻ്റ ആ ഓ ആ എല്ലാം ഉണ്ട് ആ എല്ലാം ഉണ്ട് ആ ഇപ്പോൾ കുട്ടിക്ക് ഏതാണ് ഇൻ്ററസ്റ്റ് ഉള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കും ഇവിടെ അപ്പം അതിന് എല്ലാത്തിനോടും ആ അതിനുകൂടെ കൂട്ടിയിട്ട് ആണ് ആറായിരം രൂപ വരുന്നത് കേട്ടോ

നിങ്ങൾ നാളത്തന്നെ പോകുന്നോളൂ ആ അപ്പം ആ വരുമ്പം കുട്ടീൻ്റ അവിടുത്തെ ടി സി വേണം പിന്നെ ആധാർ പിന്നെ ഒരു ഫോട്ടോ വേണം ആ പിന്നെ പേരൻറ്റ് വന്നാൽ മാത്രം മതി ആ അച്ഛൻ അമ്മയും വരേണ്ടി വരും കേട്ടോ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒക്കെയെ ആ പറയാൻ പറ്റൂള്ളൂ ആ ഓക്കെ ഓക്കെ